ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ആ ഞാൻ ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ നിങ്ങളെ വിളിച്ചിരുന്നു ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ ആയിട്ട് അപ്പം നിങ്ങളോട് ഒരു നമ്പർ തന്നിട്ട് ഇയാളെ വിളിച്ചാൽ മതി അയാൾ വരും എന്നായിരുന്നു പറഞ്ഞത് അപ്പം ഞാൻ അയാളെ വിളിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ അപ്പം അയാൾ രാവിലെ ആകുമ്പോഴത്തേക്കും എത്താം എന്നായിരുന്നു പറഞ്ഞത് ഞങ്ങൾ കുടുംബമായിട്ട് ഒരു വിനോദസഞ്ചാരത്തിന് പോകാൻ വേണ്ടി ആയിരുന്നു ഓർഡർ ചെയ്തത് അല്ല കാബ് ബുക്ക് ചെയ്തത് അപ്പം അയാൾ രാവിലെ എത്താം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു രാവ് ഇന്നലെ വരെ കോൾ എടുത്തതായിരുന്നു അയാൾ ഇന്ന് രാവിലെ അയാളെ വിളിച്ചപ്പോൾ ഉണ്ട് അയാൾ കോള് എടുക്കുന്നില്ല എന്തുകൊണ്ട് ആണ് കോള് എടുക്കാത്തത് എന്ന് അറിയത്തില്ല കുറേ വിളിച്ചു നോക്കി അയാൾ കോൾ എടുക്കുന്നില്ല അപ്പം ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വേറെ ക്യാബ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങൾ വേറെ ക്യാബ് ബുക്ക് ചെയ്തേനെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതായത് ഞങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പോൾ വേറെ ക്യാബ് ബുക്ക് ചെയ്ത് പോകാൻ ഭയങ്കര ലേറ്റ് ആകും അപ്പം ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്നു നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങളുടെ ക്യാബ് ഉണ്ടെന്നു വിചാരിച്ചാണ് നമ്മൾ വേറെ ക്യാബ് ബുക്ക് ചെയ്യാത്തത് അപ്പം അയാൾ വരും എന്ന് പറഞ്ഞു നിന്നിട്ട് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം വിളിച്ചു നോക്കി അയാൾ കോളും എടുക്കുന്നില്ല നമ്മൾ ഇപ്പം എന്താ ചെയ്യേണ്ടത് പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്യ് അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഇത് ഒന്നും ഇല്ല പെട്ടന്ന് വേണം